ഹലോ ആ

സെൻറ്റ് തോമസ് ഹോസ്പിറ്റൽ ആ മോട്ടർ ആ വെളളം അത് വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടറല്ലേ ഏച്ചി ആ ആ കൊള്ളാം ആ വരാൻ ചേച്ചി ഇതെവിടെയാ സ്ഥലം ഏതാ ചെത്തിപ്പുഴ ചെത്തിപ്പുഴയിലെവിടെയെന്നാണ് പറഞ്ഞത് ചെത്തിപ്പുഴ ഹോസ്പിറ്റല് ചെത്തിപ്പുഴ ഇവിടുന്ന് ആ ചങ്ങനാശ്ശേരീന്ന് വരുമ്പം ചങ്ങനാശ്ശേരീന്ന് വരുമ്പോൾ ആ ഹോസ്പിറ്റലിനു നേരെ ഓപ്പസിറ്റ് അതിൻ്റെ ഐഡൻറ്റിറ്റി ഒന്ന് പറയാമോ ആ അതിൻ്റെ അവിടെ ഗേറ്റ് ഗേറ്റുണ്ടോ

കാലായിൽ ഓക്കെ അവിടെ ആ ഗേറ്റ് പേരെഴുതീട്ടുണ്ടോ ഗേറ്റ് ഗേറ്റിൽ പേരെഴുതി ഗേറ്റ് പേര് പേരെഴുതീട്ടുണ്ട് ഓക്കെ ഇന്ന് എന്താണെന്നു വെച്ചാൽ ഇന്നിപ്പം ഞാൻ വേറൊരിടത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എനിക്കിന്ന് വർക്കുണ്ട് നാളെ നാളെ എനിക്ക് നാളേയും ആ നാളെയും എനിക്ക് വർക്കുണ്ട് ആ ആളൊഴിഞ്ഞ് കയറി താമസം ഓക്കെ ആ ചേച്ചി ഇത് കിണറ്റിലിടുന്ന മോട്ടറ് കിണറാണോ ടാങ്കാണോ കിണറാ കിണറാണ് കിണറാ കിണറ്റിൽ കിണറ്റിലിറക്കി വെയ്ക്കുന്ന മോട്ടറാ ആ മോട്ടറ് മോട്ടറ് ആ ഞാൻ വാങ്ങിക്കണോ അതോ നിങ്ങൾ വാങ്ങിക്കുമോ വാങ്ങിച്ചു ഏത് കമ്പനിയുടെ ഏത് കമ്പനിയാ വി ഗാർഡ് വി ഗാർഡുണ്ട് തോംസണുണ്ട് കിർലോസ്കറുണ്ട് ആ ഞാൻ എന്നാൽ അപ്പോൾ അന്വേഷിച്ചിട്ട് അവിടെ ചോദിച്ചിട്ട് ഞാൻ അതിൻ്റെ വില എത്രയാണെന്ന് ചേച്ചിയോട് അവിടുത്തെ വില ഞാൻ പറയാം അതുപോലെ പൈപ്പിൻ പൈപ്പിൻ്റെ ഫിറ്റിങ്സ് അതൊക്കെയോ അതും ഇല്ല എന്നാൽ ഇന്ന് രണ്ട് പേരായിരിക്കും വരുന്നത് ഒരാൾ ഒരാൾ കൂടെ കൂടെ കൂടെ വരും ആ ഓ ആ ഒന്ന് ഇന്ന് നാളെ നാളത്തേക്ക് വരാം നാളെ ഉച്ച കഴിഞ്ഞിട്ട് പോരുന്നോ നാളെ ഉച്ച കഴിഞ്ഞാണെങ്കിൽ രാവിലത്ത പരിപാടി തീർത്തിട്ട് ഞാൻ വന്നാൽ മതിയോ ആ ഓ ആ നാളെ നാളെ ഏതെങ്കിലും സമയത്ത് ഞാൻ വന്ന് ഫിക്സ് ചെയ്ത് തന്നോളാം